ഇപ്പോൾ വിവാഹങ്ങളിൽ കൂടുതൽ ആയിട്ടും വധുവിന് നൽകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ആയിട്ടാണ് കൊടുക്കുക കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് പലരീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ നേരിടും അപ്പം അതിനൊക്കെ ഒന്ന് ചെറിയ രീതിയിലെങ്കിലും നമ്മൾ എല്ലാവരും സഹായിക്കുന്നത് എന്ന് പറഞ്ഞാൽ ക്യാഷ് ആയിട്ടാണ് അത് നമ്മൾ ഇപ്പോൾ അവിടെ പോയിട്ട് ഒരു കവർ ഉണ്ട് ആ കവറിൽ നമ്മൾ ഇട്ടിട്ട് പേര് എഴുതിയിട്ട് കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളാണ് കുടുതലായിട്ടും ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പം ഇപ്പോൾ അഞ്ഞൂറിൽ കുറഞ്ഞതാരും അങ്ങനെ കൊടുക്കാറില്ല പിന്നെ സമ്മാനങ്ങൾ കൊടുക്കുന്നത് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും കാരണം ന്തേച്ചാഞ്ഞാൽ അവര് വധുവിന് കൂടുതൽ ആയിട്ടും സാരിയോ ചുരിദാറോ അങ്ങനത്തെന്തെങ്കിലോക്കേയാണ് വാങ്ങിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ അവരുടെ ഫോട്ടോസോ അങ്ങനെ എന്തെങ്കിലും അതായത് വധുവിൻ്റെയും വരൻ്റെയും ഫോട്ടോസ് അങ്ങനെ എന്തെങ്കിലും ഫ്രെയിം ചെയ്തിട്ട് കൊടുക്കാറുണ്ട് പിന്നെ അല്ലാണ്ട് വേറെന്തെങ്കിലും പ്രസന്റേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് കൂടുതലായിട്ടും എല്ലാവരും കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ആയിട്ടാണ് കാരണം നമു ഓരോ ചിലവുണ്ട് കാരണമെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയുള്ള വീടുകളിലൊക്കെ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് സ്വർണം എടുക്കണം സാരി എടുക്കണം പിന്നെ അവിടത്തെ ചിലവ് ബിരിയാണി ആൾക്കാർക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം എല്ലാത്തിൻ്റെയും ചിലവ് നോക്കുവാണങ്കില് കൂടുതലായിരിക്കും നമ്മൾ കുറച്ച് നമ്മളെപറ്റുന്ന നമ്മളാൽ കഴിയുന്ന സഹായം അവർക്ക് ചെയ്യുവാണങ്കില് അത്രയും നല്ലത്